ആ ഇടക്കിടയ്ക്ക് ഞാൻ ടൂറ് പോകാറുണ്ട് അത് എനിക്ക് പ്രിയപ്പെട്ടത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് പ്രത്യേകിച്ചും മധുര മധുരാപുരി അവിടുത്തെ ആ ക്ഷേത്രങ്ങൾ കൃഷ്ണന് ജനിച്ച് വളര്ന്ന സ്ഥലം കൃഷ്ണലീലകൾ കൃഷ്ണനിടയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ ആ യമുനാ നദി അതിന്റെ തീരങ്ങളിൽ ഒക്കെ അവിടൊക്കെ പോയി യാത്ര ചെയ്യാന് എനിക്കിഷ്ടമാണ് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ അവിടെ ഒരുപാട് സ്ഥലങ്ങളിനിയും കാണാനുണ്ട് എങ്കിലും ആ ഒരു പോയ ഓര്മകളെനിക്കിപ്പോഴുമുണ്ട് അവിടെത്തന്നെ വീണ്ടും വീണ്ടും പോകാനാണ് എന്റെ ആഗ്രഹം മറ്റൊന്ന് ഗുരുവായൂരമ്പലം ഗുരുവായൂരും ആ ഇതുപോലെ പോകേം അവിടെ എനിക്ക് താമസിച്ച് തൊഴാനും ഒക്കെ വളരെ ഇഷ്ടമാണ് അവിടെ ഇങ്ങനെയുള്ള തീര്ത്ഥാടന കേന്ദ്രങ്ങളില് പോകാനാണ് എനിക്ക് പ്രധാനമായിട്ടും ഇഷ്ടം മറ്റൊന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ വളരെ നല്ലൊരനുഭവമാണ് അവിടെ തൊഴുമ്പോഴും ഒക്കെ കിട്ടുന്നൊരു ഒരു എന്താണ് ശാന്തി മനസുഖം വളരെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള തീര്ത്ഥാടന കേന്ദ്രങ്ങളില് പോകാന് മാത്രമാണ് എനിക്കിഷ്ടം അല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ പോകാന് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് എങ്കിലും അതില് കൂടുതൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളില് പോവാനും ങ്ങാ അങ്ങനെയുള്ള ക്ഷേത്രങ്ങള് സന്ദര്ശിച്ച് ഒരു നിര്വൃതി അടയാനുമാണ് എനിക്ക് താല്പര്യം അല്ലാതെ ഉണ്ട് സ്ഥലങ്ങളുണ്ട് കടല്പ്പുറങ്ങളും മറ്റും എനിക്കിഷ്ടമാണ് ആലപ്പുഴ ബീച്ചിൽ മിക്കപ്പോഴും പോകാറുണ്ട് അതുപോലെ ഓരോ ബീച്ച്കളിൽ പോകാറുണ്ട് അവിടെ കിട്ടുന്ന എന്തെങ്കിലും സമീപ പ്രദേശങ്ങളിന്ന് കിട്ടുന്ന ഭക്ഷണം സാധനങ്ങള് കഴിച്ച് കൊണ്ട് വെറുതേ യാത്ര ചെയ്യാൻ ആ കടല് കാറ്റ് ഏറ്റ് അതിന്റെ തീരത്തൂടെ നടക്കാൻ ആലപ്പുഴ ബീച്ച് നല്ലതാണ് തിരുവനന്തപുരത്ത് അവിടെ പോയതാണ് അവിടെയും ഇഷ്ടമാണ് എങ്കിലും ഇതിലൊക്കെ എനിക്ക് ഇഷ്ടം തീര്ത്ഥാടന കേന്ദ്രങ്ങളിലാണ് ഇങ്ങനെയുള്ള അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ പോകാനെനിക്ക് താല്പര്യമാണ് ഗുരുവായൂരമ്പലത്തില് പോകണമെന്നാണ് എന്റെ ആഗ്രഹം അടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തില് പോയി ഒരു ദിവസം തങ്ങണം തങ്ങി അവിടെ എല്ലാം തൊഴുത് രണ്ട് ദിവസം അവിടെ താമസിച്ച് വരണമെന്നാണെന്റെ ആഗ്രഹം അവിടെ നന്നായി തൊഴുത് പ്രാര്ത്ഥിക്കണം എന്നുള്ളത് ഒരാഗ്രഹം തന്നെയാണ് പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിലുവൊക്കെ ഇതുപോലെ പോകണമെന്ന് ആഗ്രഹമുണ്ട്